ഞങ്ങളുടെ എല്ലാം വീടുകളിൽ എന്തെങ്കിലും വിശേഷങ്ങൾ വന്നാൽ മാങ്ങാക്കറി നിർബന്ധമാണ് അത് ഉണ്ടായിരിക്കു അത് എല്ലാ വീടുകളിലും വയ്ക്കുന്ന കറിയാണ് മാങ്ങാക്കറി എങ്ങനെയാണ് വയ്ക്കുക എന്ന് വെച്ചാല് അധികം പുളിയില്ലാത്ത ഒരു മാങ്ങ നന്നായി കഴുകി ചെത്തി പൂളി വയ്ക്കുക അതിലേക്കു രണ്ട് പച്ചമുളക് ഒരു കഷണം ഇഞ്ചി കറിവേപ്പില ഒരു സവാളയുടെ ഒരു പകുതി കുറച്ചുള്ളി ഇവയെല്ലാം കൂടി അരിഞ്ഞു ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക കുറച്ച് വെളിച്ചെണ്ണയൊഴിക്കുക അല്പം ചൊറുക്കെ ഒഴിക്കണം പിന്നെ മല്ലിപ്പൊടി ഒരു അര സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇവയെല്ലാം ഇട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്മി പിടിപ്പിച്ച് വെച്ച് ഒരു അരമണിക്കൂറ് വെക്കണം നല്ലോണം തിരുമ്മി പിടിക്കണം അപ്പോഴാണ് അതില് എല്ലാത്തിലും അതിന്റെ ആ മസാലയും മാങ്ങയുടെ പുളിയെല്ലാം കൂടി പിടിക്കുക ഉള്ളു ഒരു അരമണിക്കൂറ് വെച്ചതിനു ശേഷം അപ്പോഴേക്കും നമുക്ക് അത് അര മണിക്കൂര് ഇരിക്കുമ്പോഴേക്കും നമുക്കൊരു തേങ്ങ പൊതിച്ചു എടുത്ത് അത് ചിരവി ഒരു തേങ്ങ ഫുൾ എടുക്കാം ആ ഒരു തേങ്ങയുടെ പാല് ആദ്യത്തെ പാല് ഒരു ലേശം വെള്ളം ചേർത്തിട്ടാണ് ആദ്യത്തെ പാൽ അടിച്ചെടുക്കേണ്ടത് ആദ്യം തലപ്പാല് മാറ്റി വെച്ചിട്ട് പിന്നീടുള്ള തേങ്ങയിലേക്ക് കുറച്ചു കൂടി വെള്ളം ചേർത്ത് ആ പാല് രണ്ടാം പാൽ എടുത്തിട്ട് അത് ഈ അരമണിക്കൂർ വെച്ചാൽ കൂട്ടിലേക്ക് ആ രണ്ടാം പാല് ഒഴിച്ച് വേവിച്ചെടുക്കുക അത് വെന്ത് കഴിഞ്ഞു കഴിയുമ്പം അത് വെന്തിട്ടു വേണം നമ്മള് മാറ്റി വെച്ചിരിക്കുന്ന തലപ്പാൽ എടുത്ത് അതിലേക്ക് ഒഴിക്കണം തലപ്പാല് ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ കറി തിളയ്ക്കണ്ട ആവശ്യമില്ല തിള വന്നു തുടങ്ങുന്ന സമയം തന്നെ നമുക്ക് അതങ്ങ് ഓഫ് ചെയ്തു വയ്ക്കാം അത് ഓഫ് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ടേക്ക് കുറച്ചു വെളിച്ചെണ്ണ ഒഴിക്ക വേണമെങ്കിൽ കുറച്ചു കടുകിടുക ചില ആള്ക്കാര് കടുകിടാറില്ല ആവശ്യമെങ്കില് കുറച്ചു കടുകിടുക പിന്നെ വറ്റൽമുളക് രണ്ടെണ്ണം ഇടുക കുറച്ചു കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് നല്ലോണം ബ്രൗൺ നിറമാകുന്നതുവരെ അത് വറുത്തിട്ട് അതുകൂടി മാങ്ങാക്കറിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല സ്മെൽ ആയിരിക്കും ആ കറി നല്ല ടേസ്റ്റും ആയിരിക്കും അത് കഴിച്ചാല് ഒത്തിരി ചോറ് തിന്നാന് പറ്റും പിന്നെ ഈ കറി എന്ന് വെച്ചാൽ ചൊറിക്കയൊക്കെ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചീത്ത ആവത്തില്ല രണ്ടുദിവസം വരെ ഒക്കെ ഇരിക്കാം അങ്ങനെ നമുക്ക് ഒക്കെ പോയി ദൂര ദൂരെ യാത്രയ്ക്ക് ഒക്കെ പോകുമ്പോൾ കറി ഒക്കെ വെച്ച് കൊണ്ട് പോയി കഴിക്കാനായിട്ട് നല്ലതാണ്